നമസ്കാരം ഞാൻ ചെൻഗ്ലായീന്ന് വിളിക്കുവാണേ ഞാൻ കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് വേണ്ടി കുറച്ച് വിഭവങ്ങൾ കൊണ്ട് വരാൻ വേണ്ടി നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പം വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ സാധനങ്ങൾ വേണമായിരുന്നു ഞാൻ പറഞ്ഞ സാധനങ്ങളുമായി ആരെങ്കിലും വരാനായോ ആ നേരത്തെ പറഞ്ഞതില്ലേ ഒരു ഇരുപത് കോഴിക്കറിയും ഇരുപത്തഞ്ച് ചപ്പാത്തി പിന്നെ ഒരു ഇരുപത്തഞ്ച് പത്തിരി പിന്നെ പൊരിച്ച കോഴിയുടെ ഒരു അഞ്ചെണ്ണം അത് മുഴുവനായിട്ടാണ് പറഞ്ഞത് ദയവായി ഇതിൻ്റെ കൂടെ ഒരു നെയ്യ്ച്ചോർ ഒന്നല്ല ഒരു പത്ത് നെയ്യ്ച്ചോറും കുറച്ച് പച്ചക്കറിയുടെ എന്തെങ്കിലും വിഭവം കൂടി വേണമായിരുന്നു പെട്ടെന്നുള്ള തിരക്കിൽ പറയാൻ വിട്ട് പോയതാണേ ഈ രണ്ട് വിഭവങ്ങൾ അവിടെ കിട്ടുന്നുണ്ട് കിട്ടോ ആണോ എങ്കിൽ ഇതും കൂടി കൊടുത്തയക്കണേ നെയ്യ്ച്ചോർ ഒരു പത്ത് പൊതി ആയിക്കോട്ടെ അതിൻ്റെ കൂടെ പച്ചക്കറി ഒരു ഏ ഏഴു പൊതി കൂടി ആ ഏഴു കറി ആ അതിൻ്റെ കൂടെ ഒരു ചെറിയ അളവിൽ ചമ്മന്തിയും കൂടെ വേണം എൻ്റെ ശബ്ദം വ്യക്തമാകുന്നില്ലേ ആ അതായത് മുൻപ് പറഞ്ഞ സാധനങ്ങളിൽ ആ അതെ അതിൻ്റെ കൂടെ പത്ത് പൊതി നെയ്യ്ച്ചോറും ഏഴ് പച്ചക്കറീൻ്റെ കറിയും പിന്നെ ഒരു ചെറിയ അളവിൽ ചമ്മന്തിയും കൂടെ ആയിക്കോട്ടെ ആ ആ മുന്നേ പറഞ്ഞ കൂടെ ഒരു കുടിക്കുവാനുള്ളതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കൂടെ ഒരു ഇരുപത് വലിയ കുപ്പി നാരങ്ങയുടെ പാനീയവും പിന്നെ ഒരു ഇരുപത് കുപ്പി മുന്തിരിയുടെ പാനീയവും അതും കൂടെ ഒന്ന് കൊടുത്ത് വിടണം അത്യാവശ്യം നന്നായി തണുത്തത് തന്നെ കൊടുത്തയക്കണേ മൊത്തത്തിലെത്ര തുകയാകും എന്ന് പറയാൻ പറ്റുമോ ആണോ ശരി എന്നാൽ അവരുടെ കയ്യിൽ കൊടുത്തയക്കാം ശരി